പാലക്കാട് ജില്ലയിൽ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് കോട്ടായിലെ കാര്യങ്ങൾ പറയാം കോട്ടായിലുള്ളത് ചെമ്പൈ ഭാഗവതരുടെ ആസ്ഥാന സ്ഥലമാണ് അവിടെ എല്ലാ വർഷവും സാംസ്കാരിക പരിപാടികൾ ഉണ്ട് സമ്മേളനങ്ങളുണ്ട് ചെമ്പൈ സംഗീതോത്സവമുണ്ട് പ്രസിദ്ധ സംഗീതജ്ഞൻ യേശുദാസിൻ്റെ പരിപാടികളുണ്ടാവും ഏകദേശം ഒരു ഒരാഴ്ച്ചയോളം നീണ്ടുനിൽക്കുന്ന സാംസ്കാരിക പരിപാടിയാണ് പിന്നെ പൊതുവെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജില്ലയിൽ ക്ഷേത്ര ഉത്സവങ്ങൾ വളരെ കൂടുതലാണ് അത് വളരെയധികം സാംസ്കാരികമായിട്ടുള്ള പൈതൃക രീതിയിലുള്ള ഉത്സവങ്ങളും ആചാരങ്ങളും ഒക്കെ അതിലുണ്ട് ഓരോ ആചാരത്തിനും ഓരോ പ്രാദേശിക തലത്തിനും അതിന് സംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അതൊക്കെ ജില്ലയിലെ ഐക്യത്തിനും സമൂഹങ്ങളുടെ ഇടയിലുള്ള ഐക്യത്തിനൊക്കെ വളരെയധികം സംഭാവനയും നൽകുന്നുണ്ട് പിന്നെ ഇപ്പോൾ വാദ്യകലകളിലൊക്കെ ഒരുപാട് കലാകാരന്മാരുണ്ട് അതുകൊണ്ടുതന്നെ വാദ്യകലയിലുള്ള ഉപകരണങ്ങളെന്ന് പറയാൻ അതുപോലെ കണ്ടമാനം കാര്യങ്ങളുണ്ട് പൊറോട്ട് നാടകമൊക്കെ അതിൽ പെട്ടതാണ് നല്ലൊരു ക്ഷേത്രോത്സവങ്ങളുടെ ഒരു സ്ഥലം കൂടിയാണ് ഉത്സവത്തിനിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ എന്ത് പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് ഊന്നലുള്ള ഒരു കല ആണ് അത് അതൊക്കെയാണ് പാലക്കാട് ജില്ലയിലെ പൊതുവായ സാമൂഹിക സാംസ്കാരിക രീതി എല്ലാവരും ഒരുമിച്ച് ചേരും എല്ലാവരും അതിൽ ജാതി മതമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അത് പള്ളിയിലെ പെരുന്നാളായാലും ശരി അതുപോലെത്തന്നെയാണ് കാണുന്നത്